ആലപ്പുഴയിലെ പ്രശസ്തമായ പാചക രീതീ വിഭവങ്ങൾ എങ്ങനെ എന്ന് വച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത് ഫിഷിങ്ങാണ് ഉള്ളത് ഇവിടെ വെള്ളം ഏറിയ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഫിഷിങ്ങിലാണ് കൂടുതലും ഇപ്പം നമ്മൾ ഒരു എന്ന കള്ളുഷാപ്പിലൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർ മൺ ചട്ടിയിൽ ചുട്ടു പൊള്ളിച്ച് അതുപോലെ തന്നെ കരിമീനുകൾ കക്ക ഇറച്ചി അങ്ങനത്തെ വിവിധ തരം രീതികളാണ് ഇവിടത്തെ പല ഇങ്ങനെയൊക്കെയാണ് ആലപ്പുഴ ജില്ലയിൽ കൂടുതലും എന്നാൽ ഭക്ഷണ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നത്